ആലപ്പുഴക്കാരൻ ആയതുകൊണ്ടുതന്നെ വള്ളംകളി നെഹ്റു ട്രോഫി വള്ളംകളി രണ്ടുമൂന്നു പ്രാവശ്യം നേരിട്ട് പോയി കണ്ടിട്ടുണ്ട് ഈ കഴിഞ്ഞ പ്രാവശ്യവും കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെത്തന്നെ എൻ സി സിയിലൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് വോളണ്ടിയറായിട്ടും അങ്ങനെയൊക്കെ നേരിട്ട് തന്നെ കണ്ടിട്ടുണ്ട് അത് കൂടാണ്ട് ടി വിയിലും കണ്ടിട്ടുണ്ട് വിനോദസഞ്ചാര ആകർഷണമെന്നുള്ള രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി വിനോദസഞ്ചാരികൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഈയൊരു സമയം നോക്കി ഓണവും വള്ളംകളിയൊക്കെ നോക്കീട്ടാണെങ്കിലും ഒത്തിരി പേർ ആലപ്പുഴയ്ക്ക് വരുന്നുണ്ട് അതുകൊണ്ടുതന്നെ ആ ഒരു കാര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി പോസിറ്റീവായിട്ടാണ് അതിന് ഉള്ളത് ഈ ഒരു വള്ളംകളി നെഹ്റു ട്രോഫി മാത്രമല്ല അത് കൂടാണ്ടുള്ള ഒത്തിരി വള്ളംകളികളും ഇതിന്റെയകത്ത് പലതരത്തിലുള്ള പല പേരിലുള്ള വള്ളംകളികളൊക്കെയുണ്ട് അത് ഏത് തന്നെ ആണെങ്കിലും എല്ലാ അടുത്തടുത്ത് ഒരേ സമയത്ത് തന്നെ ഉള്ളതുകൊണ്ട് അത് വിനോദസഞ്ചാരം ഒത്തിരി പേരെ കേരളത്തിലേക്ക് അത് പ്രധാനമായിട്ടും ആലപ്പുഴയിലേക്ക് ആഘോഷിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇന്ത്യയ്ക്ക് പുറത്തുള്ളവർ മാത്രമല്ല ഇന്ത്യയ്ക്ക് അകത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ ഒത്തിരി ആളുകൾ ഈ ഒരു സമയം നോക്കി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അത് നമുക്ക് നമ്മുടെ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകാൻ സാധിക്കുന്നതുകൊണ്ടും അതുകൊണ്ടുതന്നെ ഹൗസ് ബോട്ട് അങ്ങനെയുള്ള മേഖലകൾക്കും നല്ല നല്ല റസ്റ്റോറന്റുകൾക്കും ഒക്കെ ഇതൊരു നല്ല ഗുണമാണ് ചെയ്യുന്നത് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിനകത്തു തന്നെ മറ്റുള്ള ജില്ലകളിൽ നിന്നൊക്കെ ആലപ്പുഴയിലേക്ക് ആളുകൾ വരുന്നത് നമുക്ക് ഇവിടുത്തെ ടൂറിസം ആണെങ്കിലും അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പല തരത്തിലുള്ള ആളുകൾക്കും അതൊരു നല്ല കാര്യമാണ് അത് കുറച്ചും കൂടെ നല്ല രീതിയിൽ ചെയ്യാൻ സാധിച്ചാൽ കുറച്ചും കൂടെയൊക്കെ ആസൂത്രിതമായിട്ട് ചെയ്യാൻ സാധിച്ചാൽ ഉദാഹരണത്തിന് അങ്ങോട്ടേക്ക് എത്തിപ്പെടാനുള്ള കുറേ ബുദ്ധിമുട്ടുകൾ പലപ്പോഴും പുറത്തുനിന്ന് വരുന്നവരും പറയാറുണ്ട് പിന്നെ അവിടുത്തെ തിരക്കുകൾ നമ്മുടെ നാട്ടിലുള്ളവർ കൂടുതൽ പേരും അങ്ങോട്ടേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന തിരക്ക് അതൊക്കെ നന്നായിട്ട് കണ്ട്രോൾ ചെയ്തു കൊണ്ടുപോകാൻ പറ്റിക്കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾക്ക് ഇങ്ങോട്ടേക്ക് വരാൻ സാധിക്കും അത് കുറച്ചും കൂടെയൊക്കെ നമ്മൾ കണ്ട്രോൾ ചെയ്യണം എന്നുള്ളതാണ് പല ആളുകൾക്കും പല സ്ഥലങ്ങൾ സ്ഥലങ്ങളിൽക്കൂടെ അങ്ങോട്ടേയ്ക്ക് എത്താനായിട്ട് ഈ പുറത്തുനിന്ന് വരുന്നവർക്ക് സാധിക്കണം ഇതിപ്പം ഒന്നോ രണ്ടോ മെയിൻ വഴികളിലൂടെ പോകുന്നത് കൊണ്ടായിരിക്കാം പലപ്പോഴും വലിയ തിരക്കുകൾ ഉണ്ടാവുന്നുണ്ട് പിന്നെ ഈ മഴയുടെ വലിയൊരു പ്രശ്നമാണ് ഇതിന് ഇടയ്ക്ക് മഴപെയ്യുമ്പോൾ ചില സ്ഥലങ്ങളിൽ മാത്രമേ സ്വസ്ഥമായിട്ട് മഴപെയ്ത് മഴ ദേഹത്ത് വീഴാതെ ഇരുന്ന് ഇത് കാണാനായിട്ട് ഇത് ആസ്വദിക്കാനുള്ള സൗകര്യമുള്ളൂ ചില സ്ഥലങ്ങളിൽ അത് പറ്റാത്തതുകൊണ്ട് ഈ മഴയുടെ ചെറിയൊരു ഇത് കണ്ടുകഴിഞ്ഞാൽ പലപ്പോഴും ആളുകൾ അങ്ങോട്ടേക്ക് വരാതിരിക്കണതായിട്ടൊക്കെ തോന്നാറുണ്ട് ആ ഒരു കാര്യം കൂടെയൊക്കെ ശ്രദ്ധിക്കണം വിനോദസഞ്ചാര മേഖലയിൽ പിന്നെ നമ്മൾ ഇവിടെ ഉള്ള ആളുകളും കൂടെ മറ്റുള്ള ആളുകളെ ഏറ്റവും നല്ല രീതിയിൽ സ്വീകരിക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊടുക്കാനൊക്കെ നമ്മളും കൂടെ ഉത്സാഹം കാണിച്ചുകഴിഞ്ഞാൽ ഒത്തിരി പേര് ഇങ്ങോട്ടേക്ക് വരും വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയൊരു വളർച്ചയാവും അത് അങ്ങനെ കൂടെ നമ്മൾ നമ്മളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എല്ലാവരും അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് നല്ലതാണ് അതുകൂടാണ്ടാണ് ഈ ടി വിയിലൂടെ കാണുമ്പോൾ ഉള്ള ഇതെന്ന് വെച്ചുകഴിഞ്ഞാൽ പരസ്യങ്ങളിലൂടെ ഉള്ളൊരിതുണ്ട് എന്നാൽത്തന്നെയും ടി വിയിലൂടെ കാണുമ്പോൾ ഈ പറഞ്ഞ ഒരു വരുമാനം കിട്ടത്തില്ല അതുപോലെത്തന്നെ ആസ്വാദനം എത്രമാത്രം ഉണ്ടാകുമെന്ന് അറിയത്തില്ല ഇപ്പോഴത്തെ ഒരു ജനറേഷനിലുള്ള ആസ്വാദനം എത്രമാത്രം ഉണ്ടെന്നറിയത്തില്ല പണ്ട് റേഡിയോയിലും ടി വിയിലുമൊക്കെ ഇതിൻ്റെ ഇത് ആസ്വദിച്ചിട്ടുള്ളതാണ് എന്നാൽത്തന്നെയും നേരിട്ട് പോയി കാണുമ്പോഴുള്ളൊരാസ്വാദനം ഉണ്ട് എന്നാലും സൗകര്യപ്രദമായി വീട്ടിൽ സുഖമായിട്ടിരുന്ന് കാണാം എന്നുള്ളത് വെച്ച് ടി വി നല്ലൊരിതാണ്